ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഡോക്റ്റമാരെയൊന്നും കാണിച്ചിട്ടില്ല മൃഗങ്ങളെ കോഴിക്കും പശുവിനും അങ്ങനെ വലിയ വലിയ രോഗങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ചില സമയത്ത് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി അതിനെ പരിപാലിക്കും അല്ലാതെ പുറത്തുനിന്ന് മൃഗ ഡോക്റ്റെ കൊണ്ടുവരലോ പരിശോധിക്കലോ ഒന്നും ഇല്ല അതിൻ്റെ ആവശ്യം ഇത് വരെ വന്നിട്ടില്ല ഗെവർമെൻറ്റ് ഡോക്റ്റർമാരക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു പക്ഷെ ഇതുവരെ ഞാൻ പോയിട്ടില്ല കാരണം അതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവുമ്പം അതിന് പിന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളോ മരുന്നോ പിന്നെ അത് മാറിക്കോളും അത്കൊണ്ട് അങ്ങനെത്തെ ഒരു ആവശ്യം വരാത്തത്കൊണ്ട് ഡോക്റ്റമ്മാരെ എങ്ങനെയാണെന്ന് കോഴിക്കളെയും പശുക്കളെയും നോക്കുന്ന കാര്യങ്ങൾ എനിക്ക് അറിയില്ല വീടിൻ്റെ അടുത്തൊക്കെ വരലുണ്ട് എന്ന് തോന്നുന്നു